നമ്മൾ വീട്ടിലേ ആവശ്യങ്ങൾക്കായി കോഴിയേ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധ ചെലത്തുന്നുണ്ട് ന്നൊണ്ട് ഇണകളേ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് വളരെ ആരോഗ്യമുള്ള പൂവൻ കോഴിയേയാണ് നമ്മള് തിരഞ്ഞെടുക്കാറ്

ചെറിയ മൃഗങ്ങളേ ചെറുപ്പമുള്ള മൃഗങ്ങളേ പരിപാലിക്കുമ്പഴ് അത് മുയലാണെങ്കില് മുയലിനെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധയോടും വളരെ ശ്രദ്ധയോട് വേണം പരിപാലിക്കാനായിട്ട് ചെറിയ മുയലുകൾക്ക് അല്പജീവികളാണ് അവർക്ക് പെട്ടന്നാണ് രോഗങ്ങൾ വരാനും പിന്നെ കീട അത് ക്ഷീണങ്ങൾ ക്ഷീണം തോന്നും ക്ഷീണമൊക്കെ തോന്നുന്നത് പെട്ടെന്നായിരിക്കും അപ്പോൾ പ്രതിരോധ മരുന്നുകൾ കൊടുത്തും മൃഗാശൂപത്രിയിൽ കൊണ്ട്പോയിയും ഒക്കെ ചികിൽസ നമുക്ക് പ്രധിരോധിക്കാം പ്രതി അപ്പം നേടവുന്ന പ്രതിരോധം നേടാവുന്നതാണ് പിന്നെ അവയുടെ അവയുടെ ആഹാരം കൊടുക്കുന്ന രീതിയിൽ നല്ലോണം ശ്രദ്ധ കൊടുക്കണം സസ്യാഹാരമാണല്ലോ മുയല് കഴിക്കുന്നത് ദഹനപ്രക്രിയയ്ക്ക് ഉതകുന്ന തരത്തിൽ ഉള്ള ആഹാരമായിരിക്കണം മുയലുകൾക്ക് കൊടുക്കേണ്ടത് പിന്നെ അവരടെ പ്രസവസമയത്തയ്ൻ്റെ ചെറിയ മുയൽക്കുഞ്ഞ്ങ്ങളേ മാറ്റി ഇടണം ഇല്ലെങ്കിൽ ആൺ മുയലത് കടിച്ച് തിന്നും വളരെ ശുദ്ധിയോടും ശ്രദ്ധയോടും കൂടെ വേണം മുയല് വളർത്ത് വളർത്തേണ്ടത് ഇതിന് വളെ ഫുള്ള് സമയം ഇതിനായിട്ട് നമ്മൾ ചിലവഴിക്കുകയും ഈ മുയലിനെ ഇവേ ഇവയെ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തില്ലെൽ അലസമായിട്ട് ചെയ്താലത് അവയെ അവയുടെ ആയുസ്സിനെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടത് വളരെ ശ്രദ്ധയോട് കൂടെ വേണം നമ്മളത് ചെറിയ മൃഗങ്ങളേ പരിപാലിക്കാൻ